പാത്രങ്ങൾ കഴുകുന്ന പ്രക്രിയ എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ രാവിലെ തൊട്ട് രാത്രി വരെ യൂസ് ചെയ്തിട്ടുള്ള പാത്രങ്ങളെല്ലാം കളക്റ്റ് ചെയ്യുന്നു അത് ബെയ്സിൻ്റെ സൈഡിൽ കൊണ്ടു വെക്കും ആ പിന്നെ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഒരു ബാസ്ക്കറ്റ് ഉണ്ട് വേസ്റ്റ് ഇടാനായിട്ട് ഒരു പാ ബാസ്ക്കറ്റ് ഉണ്ട് ആ ബാസ്കറ്റിൽ ഫുഡ് വേസ്റ്റ് എല്ലാം കൂടി കളക്റ്റ് ചെയ്യും ആദ്യം തന്നെ അതു മാറ്റും അല്ലെങ്കിൽ ഈ ബെയ്സിനിലൂടെ വാട്ടർ പോകുന്ന ആ ഒരു ഹോളില്ലേ അതിൽ ഈ ഫുഡ് വേസ്റ്റ് തടഞ്ഞ് ബ്ലോക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പം അത് ഒഴിവാക്കാനായിട്ട് ഫുഡ് വേസ്റ്റ് എല്ലാം കൂടി ഒരു ബാസ്കറ്റിൽ കളക്ട് ചെയ്യുന്നു

അടുത്ത് എന്ന് പറയുമ്പോൾ ഒരു വലിയ ബെയ്സിനുണ്ട് അതിനകത്ത് വെള്ളം പൈപ്പിൽ നിന്ന് എടുത്തിട്ട് ഈ ബെയ്സിൻ്റെ മറ്റൊരു സൈഡുണ്ടല്ലോ അവിടെ വെക്കും ക പാത്രങ്ങൾ കഴുകാനായിട്ട് പിന്നെ ഒരു ഗ്ലൗസ് യൂസ് ചെയ്യും എപ്പോഴും എന്നു വെച്ചാൽ വിം ബാർ യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് കയ്യിൽ ഇറിറ്റേഷൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു അലർജിയുടെ സ്റ്റാർട്ടിങ് പോലെ തോന്നി അപ്പോൾ റിസ്ക് എടുക്കേണ്ടയെന്ന് കരുതിയിട്ട് പിന്നെ ആയപ്പോൾ ഒരു ഗ്ലൗസ് വാങ്ങി അത് യൂസ് ചെയ്തിട്ടാണ് എപ്പോഴും വിം ബാർ യൂസ് ചെയ്യുന്ന അപ്പോഴൊക്കെ ഗ്ലൗസ് യൂസ് ചെയ്യാറുണ്ട് അമ്മയും യൂസ് ചെയ്യാറുണ്ട് പാത്രം കഴുകുന്ന സമയത്ത് അപ്പോൾ വിം ഈ വിം ബാർ യൂസ് ചെയ്തിട്ടാണ് പാത്രങ്ങൾ കഴുകുന്നത് ഞങ്ങളിവിടെ പിന്നെ പറയുകയാണെങ്കിൽ മൂന്ന് സ്ക്രബ്ബറാണ് യൂസ് ചെയ്യുന്നത് രണ്ട് സ്റ്റീലിലുള്ള സ്ക്രബ്ബറും പിന്നൊന്ന് ഒരു ഗ്രീൻ കളർ പച്ച കളറിലുള്ള ഒരു സ്ക്രബ്ബറും കൂടെ ഉണ്ട് ഈ സ്റ്റീൽ സ്ക്രബ്ബറിൻ്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് എന്നു പറയുന്നത് ഈ സ്റ്റീൽ പാത്രങ്ങളിൽ സ്റ്റീലിലെ സ്ക്രബ്ബർ യൂസ് ചെയ്യുന്ന സമയത്ത് പോറൽ വീഴാനുള്ള ചാൻസുണ്ട് ചിലരത് ശ്രദ്ധിക്കും ചിലർക്ക് ഈ പാത്രങ്ങളിൽ പോറൽ വീഴുന്നത് ഇഷ്ടമല്ല സൊ അവർ ഈ ഗ്രീൻ കളറിലുള്ള അല്ലെങ്കിൽ പച്ച കളറിലുള്ള സ്ക്രബ്ബർ യൂസ് ചെയ്തിട്ടാണ് പാത്രങ്ങൾ കഴുകുന്നത് കുറച്ചും കൂടി സോഫ്റ്റ് ആണ് അധികം അങ്ങനെ പോറൽ വീഴാറില്ല പിന്നെ ഒരു സ്റ്റീൽ സ്ക്രബ്ബർ സാധാരണ പാത്രങ്ങൾ കഴുകാനായിട്ട് മറ്റൊരു സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ അത് മീനിൻ്റെ പാത്രങ്ങൾ ഉണ്ടാകും മീനുണ്ടാക്കിയ പാത്രങ്ങൾ ഉണ്ടാകും അപ്പം അത് കഴുകാനായിട്ടാണ് പ്രത്യേകം ഒരു സ്ക്രബ്ബർ മാറ്റി വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇപ്പോൾ സെയിം സ്ക്രബ്ബർ തന്നെ യൂസ് ചെയ്ത് നമ്മൾ എല്ലാ പാത്രങ്ങളും അതായത് മീൻ വെച്ച പാത്രങ്ങൾ ഉൾപ്പെടെ കഴുകുകയാണെങ്കിൽ മീനിൻ്റെ സ്മെല്ല് ചിലപ്പോൾ വരാനായിട്ട് മറ്റു പാത്രങ്ങളിലും കൂടി വരാനായിട്ട് ചാൻസുണ്ട് സെയിം സ്ക്രബ്ബർ യൂസ് ചെയ്യുന്നെങ്കിൽ അപ്പം അത് ഒഴിവാക്കാനായിട്ടാണ് മീൻ പാത്രങ്ങൾ മീൻ ഉണ്ടാക്കിയ പാത്രങ്ങൾക്ക് വേണ്ടി മാത്രം വേറൊരു സ്ക്രബ്ബർ മാറ്റി വെച്ചിരിക്കുന്നത് അപ്പോൾ ആദ്യം ഫുഡ് മെറ്റീരിയൽ എല്ലാം കളഞ്ഞു എന്നിട്ട് ഒരു പാത്രം എടുക്കുന്നു അത് ഏത് ടൈപ്പ് ആണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള സ്ക്രബ്ബർ യൂസ് ചെയ്ത് വിം ബാറിൽ ടച്ച് ചെയ്തിട്ട് പാത്രം കഴുകുന്നു പിന്നെ ബെയ്സിനിൽ മാറ്റി വെച്ചിരുന്ന വെള്ളം ഉണ്ടല്ലോ അത് യൂസ് ചെയ്തിട്ട് പത്രങ്ങൾ ഫുള്ള് കഴുകുന്നു പിന്നെ തുടച്ച് അടിക്കി അടിക്കി വെക്കും അപ്പോൾ ഈ ബെയ്സിനിൽ വെള്ളം മാറ്റി വെക്കുന്നത് വാട്ടർ നമുക്ക് കുറച്ചും കൂടി കുറച്ചു യൂസ് ചെയ്യാനായിട്ട് പറ്റും മറ്റേത് നമ്മൾ പൈപ്പിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് എടുക്കുമ്പോൾ ഒരുപാട് വെള്ളം എന്താ പോവുകയാണ് അത് ഒഴിവാക്കാനായിട്ടാണ് ഒരു ബെയ്സിനിൽ മാറ്റി വെച്ചിട്ട് പത്രങ്ങൾ കഴുകാനായിട്ട് യൂസ് ചെയ്യുന്നത് പിന്നെ ഉള്ളത് എന്ന് പറയുമ്പോൾ ഈ അരി നമ്മൾ ചോറ് വെക്കുന്ന പാത്രം പിന്നെ മീൻ വറക്കുന്ന പാത്രം ഒക്കെ അല്ലെങ്കിൽ അതൊക്കെ ചെയ്യുന്നത് ഈ അരി വെക്കുന്നത് അല്ലെങ്കിൽ ചോറ് വെക്കുന്നത് മീൻ വറക്കുന്നതൊക്കെ പുറത്ത് വിറകടുപ്പിലാണ് വെക്കുന്നത് അപ്പോൾ ആ സ്വാഭാവികമായിട്ടും പത്രങ്ങളിൽ എന്താണ് ചുറ്റും കരി വരും വിറകടുപ്പിലാണ് ആ ഗ്യാസിലല്ല വെക്കുന്നത് ആ ഈ ചോർ വെക്കുന്നതും മീൻ പൊരിക്കുന്നതിനൊക്കെ അപ്പോൾ അത് ആ കരി കളയാനായിട്ട് സാധാരണ ചാമ്പലും പിന്നെ സാധാരണ ചകിരി യൂസ് ചെയ്തിട്ടാണ് ആ പുറം ഭാഗം കഴുകി കളയുന്നത് വിറക് കത്തി കഴിഞ്ഞതിനു ശേഷമുള്ള ചാമ്പൽ യൂസ് ചെയ്ത് പണ്ടൊക്കെ ആൾക്കാർ അങ്ങനെയാണ് എല്ലാ പത്രങ്ങൾ കഴുകാനും പണ്ട് ചാകി ചാമ്പലായിരുന്നു യൂസ് ചെയ്തിരുന്നത് ഇപ്പോഴാണ് വിം ബാറൊക്കെ വന്നിരുന്നത് ഇപ്പം ഞങ്ങൾ ഈ ച ഒരു കരിയുടെ പോഷൻ മാത്രം കഴുകി കളയാനായിട്ട് ചാമ്പൽ യൂസ് ചെയ്യാറുണ്ട് പിന്നെ എണ്ണമയമുള്ള പത്രങ്ങൾ വൃത്തി ആക്കാനായിട്ട് ചിലപ്പോൾ ആദ്യം ഇപ്പോൾ ഈ എണ്ണമയം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫ്രയ് ചെയ്യുന്ന സമയത്ത് അടി അതായത് ഇതിൻ്റെ ബെയ്സിൽ പത്രങ്ങളുടെ ബെയ്സിൽ കരി പിടിക്കാനുള്ള ചാൻസുണ്ട് അങ്ങനെ വരുന്നെങ്കിൽ കുറച്ചു വിം ബാർ എടുക്കും കുറച്ചു വെള്ളം കൂടി യൂസ് ഒഴിക്കും മിക്സ് ചെയ്തിട്ട് ഒരു സോപ്പ് വെള്ളം പോലെ ആ ആ ഒരു മിശ്രിതം ഈ ഒരു പത്രത്തിലോട്ടൊന്ന് ഒഴി ഒഴിച്ചു വെക്കും ഒന്ന് കുതിരാനായിട്ട് എന്നിട്ട് പിന്നീട് സ്ക്രബ്ബർ യൂസ് ചെയ്തിട്ട് നല്ല നല്ല രീതിക്കങ്ങ് കഴുകി കളയാണ് ചെയ്യുന്നത് അഥവാ അടിയിൽ പിടിച്ചിട്ടില്ലെങ്കിലും സാധാരണ ഇതുപോലെ കുറച്ചു നേരം നല്ല രീതിക്ക് ഈ ഒരു വിം ബാറിലെ വെള്ളത്തിൽ മുക്കി വെക്കും അപ്പോൾ ഒരു എണ്ണമയമൊക്കെ ഒന്ന് പോകും പിന്നെ ഒന്നും കൂടി എടുത്ത് നല്ല രീതിക്ക് വിം ബാർ എടുത്തിട്ട് ആ സോപ്പ് എടുത്ത് കഴുകും എന്നിട്ടും പോയില്ലെങ്കിൽ വീണ്ടും ഒന്നും കൂടി സോപ്പ് എടുത്തിട്ട് കഴുകിയിട്ട് വെള്ളം യൂസ് ചെയ്ത് കഴുകി കളയും ഇങ്ങനെയാണ് സാധാരണ ഇവിടെ എണ്ണമയമുള്ള പത്രങ്ങളിൽ ചെയ്യാറുള്ളത്